എനിക്കങ്ങനെ ഡ്രോയിങ്ങ് ക്ലാസ് ശിൽ ശില്പശാലയിലൊന്നും ഡ്രോയിങ്ങ് ക്ലാസ് എടുത്തിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ മക്കൾ നന്നായിട്ട് എന്താ പറയുക വരക്കും ഡ്രോയിങ്ങൊക്കെ ചെയ്യും അതുപോലെ തന്നെ മക്കൾ പഠിക്കുന്നുണ്ട് അവരെ പഠിക്കാൻ വിടുന്നുണ്ട് അവർ പല രൂപങ്ങളൊക്കെ വരച്ച് ഡ്രോയിങ്ങ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് വൃ ചെയ്യാറുണ്ട് അങ്ങനെ അതവർ പഠി പഠിക്കണുണ്ട് പിന്നതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഇപ്പം ഹസ്ബൻഡ് ഹസ്ബൻഡ് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്യും പെയിൻറ്റിങ്ങ് ചെയ്യും അങ്ങനെ ഏതെങ്കിലും ഒരു പിക്ച്ചർ എന്തും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് അതേ മാതിരി തന്നെ അതിൽ പകർത്താൻ പകർത്തി വരക്കാറുണ്ട് പിന്നതുപോലെ തന്നെ പിന്നെന്താ പറയുക അതുപോലെ തന്നെ പലതരം രൂപങ്ങളൊക്കെ ഈ മണ്ണിലൊക്കെ ശിൽപ്പങ്ങളൊക്കെയുണ്ടാക്കി നോക്കാറുണ്ട് അതേമാതിരി കളിമണ്ണ് കൊണ്ടു തന്നെ പലതരം രൂപങ്ങളുണ്ടാക്കി മണ്ണ് അത് ചുട്ടെടുത്ത് എന്താണ് അങ്ങനെയൊക്കെ കനലിൽ ചുട്ടെടുത്ത് അങ്ങനെ കുറേ രൂപങ്ങളുണ്ടാക്കാറുണ്ട് പിന്നെങ്ങനെ പ്രാവ് കൊക്ക് അങ്ങനെയുള്ള പലതരം ശിൽപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നതുപോലെ മയിൽ എന്താ പറയുക പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ രൂപങ്ങളൊക്കെയുണ്ടാക്കി നോക്കാറുണ്ട് പിന്നെ ഈ എന്താ കൂടുതലായിട്ടും ഈ എന്താ പറയുക ഒരു പക്ഷികളെ വരക്കണ വരക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടെന്നു പറഞ്ഞാൽ ഹസ്ബൻഡിൻറ്റെ വീട്ടിൽ ഒരു വിധം എല്ലാ ആളുകളും എന്താ കലാപരമായിട്ടുള്ള അതായത് ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ വരക്കുന്ന ആളുകളാണ് പിന്നെ അവർക്ക് അത് അതു തന്നെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് പിന്നെ അങ്ങനൊരു കഴിവുണ്ടായതു കൊണ്ട് അവർ പഠിക്കാനൊക്കെ പറഞ്ഞയക്കുന്നു ഡ്രോയിങ്ങ് പഠിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട് അവർ നല്ല രീതിയിലവരും വരക്കണുണ്ട്